ഭാരത സർക്കാരിൻ്റെ ഔദ്യോദിക ഭാഷയായി ഭരണഘടന അനുശാസിച്ചിരിക്കുന്നത് ഹിന്ദിയും ഇംഗ്ലീഷുമാണ് എന്നാൽ സംസ്ഥാന തലത്തില് വേറെയും കുറേ ഭാഷകളെ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിച്ചിട്ടുണ്ട് ഇത് ഓരോ സംസ്ഥാനത്തിനും ഇഷ്ടമുള്ളവ തെരഞ്ഞെടുക്കാനുള്ള അനുവാദവും ഭരണഘടന തന്നെ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് മാതൃഭാഷ പക്ഷെ അതില് യുവജനങ്ങള് മാതൃഭാഷയിൽ സംസാരിക്കുന്നതില് അഭിമാനം അഭിമാനിക്കാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് അഭിമാനിക്കാറുണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇന്ന് ഇംഗ്ലീഷ് ഹിന്ദി ഇതൊക്കെ പഠിച്ച് വെളിയിലേക്ക് ജോലിക്ക് പോകാനുള്ള കാര്യങ്ങളും അതിലേക്കാണ് യുവജനങ്ങള് കൂടുതലും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇംഗ്ലീഷാണ് എന്ന് തന്നെ പറയാം ഇപ്പം എല്ലാ കാര്യത്തിനും നമുക്ക് ഏതൊരു രാജ്യത്തു ചെന്നാലും നമുക്ക് ഒന്ന് മറ്റുള്ളവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കില് ഇംഗ്ലീഷാണ് വേണ്ടത് ഇനി ബാക്കി അവിടെത്തെ ആ ഒരു ഭാഷ നമുക്കറിയത്തില്ലെങ്കിലും ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പിടിച്ചുനില്ക്കാനും സംസാരിക്കാനും സാധിക്കും അപ്പം കൂടുതലും ആൾക്കാര് അതിലേക്കാണ് തിരിയുന്നത് പിന്നെ ശ്രേഷ്ഠഭാഷ പദവി ലഭിക്കുന്ന രാജ്യത്തെ അഞ്ചാമത്തെ ഭാഷ ആയിട്ട് ആണ് മലയാളം അതായത് ഇരുപത്തി രണ്ടായിരത്തി പതിമൂന്നില് തെരഞ്ഞെടുത്തിരിക്കുന്നത് മലയാള ഭാഷയുടെ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പൈതൃകവും പാരമ്പര്യവും കണക്കിലെടുത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉപസമിതി രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് ശ്രേഷ്ഠഭാഷ പദവി മലയാളത്തിനും നൽകാമെന്ന ശുപാർശ മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ളത്